ആ എന്നായിരുന്നു മാം ആണോ അപ്പം ഇങ്ങ് ട്രിപ്പായിട്ട് വരാൻ ആയിരുന്നോ ആ ഓക്കെ അപ്പം ഹിസ്റ്റോറിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻലി എങ്ങനെയാണ് എത്ര സ്ഥലങ്ങളൊക്കെ പോകുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്

അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ മാം നമുക്ക് ഒരു പാക്കേജ് ഉണ്ട് അതായത് മൂന്നാല് ഡിസ്ട്രിക്ട് ഒന്നിച്ച് കവറ് ചെയ്യുന്ന ഒരു പാക്കേജുണ്ട് അതായത് ഗൈഡിങ്ങ് പാക്കേജ് ആണ് ഞാൻ ഗൈഡ് ആയിട്ട് കാണും അപ്പം അത് എന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യം തൃപ്പൂണിത്തറ ഹിൽ പാലസ് അറിയാമല്ലോ ഹിസ്റ്റോറിക് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ആണല്ലോ എറണാകുളം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് അത് ഭയങ്കരം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അവിടെത്തന്നെ ഫോട്ടോസ് എടുക്കാം കുറെ കുറെ കാര്യങ്ങളുണ്ട് ഹിസ്റ്റോറിക്കായിട്ട് ഇങ്ങനെ മ്യൂസിയം അത് കാണാം നമുക്ക് അങ്ങനെ അതു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഇടുക്കി കുറച്ച് ഹൈറേഞ്ച് സൈഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇല്ലിക്കൽ കല്ല് ഉണ്ട് രാമക്കൽമേട് രാമക്കൽമേട് ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കവറ് ചെയ്യാം ഒന്നിച്ച് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് ആണ് ആലപ്പുഴ ആ സൈഡിലോട്ട് ഒക്കെ ആവുന്നത് അപ്പത്തേക്കിനും എന്താ ബീച്ച് ഒക്കെ കാണാം പിന്നെ ഈ അർത്തുങ്കൽ പള്ളി അതൊക്കെ കുറച്ച് ഹിസ്റ്റോറിൽക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ അർത്തുങ്കൽ പള്ളി പിന്നെ ജനുവരി ടൈമിന് ആണെങ്കിൽ അവിടെ പെരുന്നാളൊക്കെ ആയിരിക്കും അപ്പോൾ അത് കുറച്ച് കൂടി നമുക്ക് അഡ്വാൻ്റേജ് ആവും പിന്നെ പാലാ സൈഡിൽ പോവുമ്പോൾ പാലാ ജൂബിലി ഉണ്ട് അപ്പോൾ ഡിസംബർ ജനുവരി ആ ടൈമിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഓക്കെ ആയിരുന്നു ആണോ ഓക്കെ അതായത് ജനുവരിയിൽ ആ അപ്പോൾ കുഴപ്പമില്ല മാം അപ്പം ഇത്രയാണ് ഞങ്ങളിപ്പം കുറച്ച് മൂന്നാല് ഡിസ്ട്രിക്ട് ഒന്നിച്ച് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണ് എന്ന് ഒന്നിച്ച് കവർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഗൈഡിംഗ് ഗൈഡിംഗ് പാക്കേജ് ഉണ്ട് ആ ആ ഓക്കെ മാം